നമ്മുടെ പിന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ കഷ്ട്ടപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ചില പദ്ധതികള് അവര് തുടങ്ങി വയ്ക്കും നമുക്ക് പാസ്സാക്കി കിട്ടാന് പക്ഷെ ഇപ്പം ബാർ ഈ ഭരണഘടന മാറുവല്ലോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പം നിലവിലുണ്ടായിരുന്ന ഭരണഘടന മാറി പുതിയ ഭരണഘടന വരുമ്പം നമുക്ക് പാസ് ആയി വന്നത് വളരെ ലൈറ്റായിട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക അത് കിട്ടാൻ ചിലപ്പം ചാൻസ് ഇല്ലാതെയാവും ചിലപ്പം നമുക്ക് കിട്ടാൻ വേണ്ടി വന്നതായിരിക്കും ഒരവസാനനിമിഷം ആ ഇലക്ഷൻ്റെ സമയം ആകുമ്പം നമുക്ക് ചെയ്ത് തരാമെന്ന് വാഗ്ദാനങ്ങൾ ഒത്തിരി ഉണ്ടാകും അത് ചെയ്തുതരുന്നു നിങ്ങൾക്ക് ഇത് ചെയ്തുതരുന്നു എന്നൊക്കെ പക്ഷെ അത് കിട്ടണം എന്നില്ല